ഹലോ ആ ബോംബേ ഹോട്ടൽ അല്ലേ ആ ഒരു ഡെലിവെറി ഉണ്ടായിരുന്നു ആ ഒരു പത്ത് പൊറോട്ടയും രണ്ട് ചില്ലി ചിക്കനും വേണമായിരുന്നു ആ ചില്ലി ചിക്കൻ സെമി ഗ്രേവി ആയിരിക്കണേ ആ പൊറോട്ട നല്ലോണം ഒന്ന് മൊരിയണം പിന്നെ നിങ്ങളുടെ ആ സ്പെഷ്യൽ കറി ഇല്ലേ അതും വേണം അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ച് ഓർഡർ ആക്കുന്നത് അതു വേണ്ടിയിട്ടാണ് ഒന്നു പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് നല്ലതായിരുന്നു കാരണം വീട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അവരെ വെയ്റ്റ് ചെയ്യിക്കാൻ പറ്റില്ല എത്തിക്കാൻ പറ്റില്ലേ ആ ഓക്കേ ഓക്കേ എത്ര എത്ര ടൈമാകും രണ്ടു മണി ഒക്കെ ആവും അല്ലേ അതൊരു പന്ത്രണ്ടു മണി ഒക്കെയാവുമ്പോൾ എത്തിക്കാൻ പറ്റുമോ കാരണം അവരെ വെയ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് വേറെ സ്ഥലത്ത് പോകേണ്ടതായിരുന്നു ആ ഇല്ല ഇല്ല ആ പിന്നെ നിങ്ങളുടെ കുറച്ച് സാലഡ് വയ്ക്കണേ സലാഡ് ആ ഓക്കേ ഓക്കേ ആ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എത്താനാകുമ്പോൾ ആ ഓക്കേ ഓക്കേ താങ്ക് യു